ആ എനിക്കൊണ്ട് കേട്ടോ എനിക്ക് എനിക്ക് ഒരു ചെറിയൊരു വീട് കെട്ടണമെന്നൊരു ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട് നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ അതിനു വേണ്ടി സ്വരുക്കൂട്ടി നമ്മളാഗ്രഹിച്ച വീട് വലിയ വീടൊന്നും വേണ്ട എന്നാലൊരു വാർപ്പിട്ട ഒരു അറുനൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് അതിന് വേണ്ടി കുറെ കഷ്ടപ്പെടണം നമ്മുടെ ഇപ്പോൾത്തെ നിലയൊക്കെ വെച്ച് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയാകും നമ്മളുദ്ദേശിക്കുന്ന വീടിന് അപ്പം നമ്മള് ഓരൊ ദിവസം നമ്മള് പണിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്യബോധത്തിലോട്ടെത്താൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഐമും ലക്ഷ്യമൊക്കേ ഒരു വീടാകുമ്പം സ്വാഭാവികമായിട്ട് നമ്മള് പണിയെടുക്കുന്ന പൈസ പണിയെടുത്തലാണ് നമുക്കാ പൈസ കൂട്ടിവച്ച് കൂട്ടിവച്ച് എന്തെങ്കിലൊക്കെ ഇറക്കാൻ പറ്റൂള്ളു വാങ്ങാൻ പറ്റൂള്ളു ഒരു ഘടകം വീടുവെക്കണംന്നൊള്ളൊരു ഘടകാണ് എന്നെ ഓരോ ദിവസവും എനെർജറ്റിക്കായി ഓരോ കാര്യം പുതിയത് പുതിയത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്